ആ പറഞ്ഞോളു അതെ അതെ ഇത് ആരായിരുന്നു വിളിക്കുന്നത് ആ ഓക്കെ പറഞ്ഞോളു മാം ആ ഓക്കെ എങ്ങനെയുള്ള സ്ഥലമാണ് നിങ്ങൾ നോക്കുന്നത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പം മാമിൻ്റെ മൈൻ്റിലെന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ അതിൻ്റെ ഏതെങ്കിലും സ്ഥലം ആപ്പോൾ കേരളത്തിന് പുറത്ത് പോകണോ അതോ കേരളത്തിന് ഉള്ളിൽ തന്നെ പോകണോ അങ്ങനെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ആ ഓക്കെ ഓക്കെ ട്രിവാൻഡ്രം നല്ലൊരു ഓപ്ഷനായിരുന്നു ആ ഓക്കെ ഓക്കെ പറയാം അതായത് ഇപ്പോൾ നിങ്ങളെത്ര ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നത് മൂന്ന് ദിവസം അപ്പോൾ ഫുഡ്ഡ് ആൻഡ് അക്കൊമഡേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യണോ അതോ നിങ്ങളായിട്ട് അത് ആ ഫുഡ്ഡ് ആൻഡ് അക്കൊമഡേഷൻ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ പിക്കപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്കതിൽ ഏത് പാക്കേജ് ആ മതി മതി ആ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഫുൾ പാക്കേജല്ലെ വേണ്ടത് ആ ഫുൾ പാക്കേജ് മൂന്ന് ദിവസത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരു എട്ട് പേർക്ക് ഒരു ആറായിരം രൂപയാണ് ഞങ്ങളിവിടെ ഞങ്ങൾക്ക് ഫീസ് വരണത് അതെ അതെ ഡേറ്റ് എന്നാന്ന് നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ എന്തെങ്കിലും ഡീറ്റേൽസ് അറിയണമെങ്കിൽ